തീർച്ചയായും പത്രം പത്രത്തിലെ വാർത്തകൾ മാത്രമല്ല ഞാൻ വായിക്കുന്നത് അതിലുള്ള പസ്സിലുകളും കോമിക്സും അതെല്ലാം പരസ്യങ്ങൾ എല്ലാം ഞാൻ അരിച്ചുപെറുക്കി വായിക്കാറുണ്ട് പ്രത്യേകിച്ച് സുഡോക്കു ഉണ്ടെങ്കിൽ ഞാനത് കളിക്കാതെ വിടത്തുമില്ല എനിക്ക് മാത്സ് വളരെ ഇഷ്ടമായതുകാരണം അതിനോടു കളിയ്ക്കാൻ എനിക്ക് ഭയങ്കര താത്പര്യവുമാണ് അങ്ങനെ അതിലുള്ള പിന്നെ ചെറിയ ചെറിയ പരസ്യങ്ങൾ അതായത് ആളെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇന്നതുപോലെ കോഴിയെ വിൽക്കുന്നു അല്ലെങ്കിൽ ഇന്നടത്ത് ഇന്നതുപോലെയുള്ള അങ്ങനെയുള്ള ചെറിയ പത്രപരസ്യങ്ങൾ പോലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വാർത്തകൾ മാത്രം വായിച്ചുപോയെന്നാൽ നമ്മൾ വാർത്തകളെപ്പറ്റി മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെയുള്ള ബെനഫിറ്റ്സുകളും ഒന്നും നമ്മൾ പിന്നെ നമ്മുടെ ചിലപ്പോൾ നമുക്ക് ഒരത്യാവശ്യം വേണ്ടുന്ന ഒരു നമ്മൾക്ക് വാട്ടർ ടാ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ വേണമെങ്കിലും നമ്മൾ പത്രത്തിലെ പരസ്യക്കോളം നോക്കിയെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ അപ്പോൾ അതോ പിന്നെ തന്നെയുമല്ല അതുപോലെ തന്നെ നമ്മൾ തൊഴിൽ എന്നു പറയുന്നത് ഒരു ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനൊരു തൊഴിൽ ലഭിക്കണമെങ്കിൽ തൊഴിലവസരങ്ങൾ നമ്മൾക്ക് അറിയാനായിട്ട് പത്രത്തിലൂടെ സാധിക്കൂ അപ്പോൾ നമ്മൾ തൊഴിലവസരങ്ങൾ അത് ചെറുതും വലുതുമായ പി എസ് സി മുതൽ തീരെ താഴേക്കിടയിലുള്ള ജോലികൾ പോലും ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു തൊഴിലിന് ആവശ്യം ഉണ്ട് തൊഴിലാളിയെ ആവശ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടുള്ള പത്ര ത്തിലെ പരസ്യങ്ങൾ എല്ലാം കാണാം അപ്പോൾ ഒരു പത്രം വായിക്കുമ്പോഴത്തേക്കും നമ്മൾ വാർത്തകൾ മാത്രമല്ല അറിയപ്പെടുന്നത് പിന്നെ ഇതിനുമുമ്പുള്ള കാഴ്ചപ്പാട് പഠിപ്പുര ഇതൊക്കെ പത്രത്തിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നോട്ടിന് വേണ്ടിയിട്ട് എടുത്ത് കട്ട് ചെയ്ത് വെക്കാനുള്ള പേപ്പർ കട്ടിങ്സൊക്കെ പഠിപ്പുരയിൽ നിന്ന് കിട്ടും അതുപോലെ ഓരോ ദിവസങ്ങളും ഓരോന്നിനായിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബുധനാഴ്ച ആണെങ്കിൽ തൊഴിലവസരം അല്ലെങ്കിൽ തിങ്കളാഴ്ച അങ്ങനെ ഓരോ നേർകാഴ്ച അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കാണും ഒരിയ്ക്കലും പത്രം വായന എന്നു പറയുന്നത് നമുക്ക് ഒരിക്കലും നഷ്ടമുണ്ടാകുന്ന ഒരു സംഭവമല്ല അതുകൊണ്ട് തന്നെ പത്രത്തിൽ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ അരിച്ചു പെറുക്കി വായിക്കും പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്നു പറയുന്നത് ഫ്രണ്ട് പേജിൽ കൊണ്ടു പോയി ഏറ്റവും വലിയ പരസ്യം അടിക്കുക പരസ്യത്തിനുവേണ്ടിയല്ല നമ്മൾ പത്രം പരസ്യം കാണാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പത്രം വാങ്ങിക്കുന്നത് നമ്മൾ പത്രം കയ്യിൽ കിട്ടിയാൽ തന്നെ നമ്മളാദ്യം നോക്കുന്നത് ഫ്രണ്ട് പേജിലായിരിക്കും ഏറ്റവും പ്രാധാന്യമുള്ള വാർത്ത കാണുന്നത് നമ്മൾ അപ്പോൾ നമ്മളാ വാർത്ത വായിക്കുവാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അന്നേരം അവിടെ ഫ്രണ്ട് പേജിൽ കൊണ്ടു വന്ന് ഈ വലിയ പരസ്യം ഇടുന്നത് അതു ശരിക്കും ഒരു എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കാണുന്നത് പിന്നെ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ പേജിലേക്ക് പോകുന്നു അപ്പോൾ കച്ചവടമനോഭാവം അവിടെ വരുന്നു അതില്ലാതെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്നുള്ളതാണ് പത്രത്തിൻ്റെ ധർമ്മം അപ്പോൾ ആ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കണം അതുകൊണ്ട് ഈ ഫ്രണ്ട് പേജിൽ പത്രം പരസ്യം ഇടുന്നതിനോട് എനിക്ക് വലിയ താത്പര്യമുള്ള കാര്യമല്ല പക്ഷെ ന്യൂസ് അത് നമ്മളാദ്യം കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ എന്താണ് പ്രധാനവാർത്തകൾ എന്നായിരിക്കും നോക്കുന്നത് അതിനുശേഷം എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുന്നത് പിന്നെ ചരമകോളമായിരിക്കും നമ്മൾക്കറിയാവുന്ന ആരെങ്കിലും മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറുഞ്ഞു അറിയാതെയാണ് ഇതിലൂടെയാണ് അറിയുന്നെങ്കിൽ അതിൻ്റെ ശവസംസ്കാരം അല്ലെങ്കിലൊന്നു പോയി കാണാൻ പറ്റുന്നതാണെങ്കിൽ അതു നമുക്കറിയണമെങ്കിൽ രാവിലെ തന്നെ അറിഞ്ഞെങ്കിലെ അത് പറ്റത്തുള്ളൂ അപ്പോൾ ആ പത്രത്തിലൂടെ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇ ഇന്നലെ മരിച്ചു ഇന്ന് അടക്കം ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ രാവിലെ പത്രം കയ്യിൽ കിട്ടുമ്പോഴേ അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് പോകേണ്ടതാണെങ്കിൽ അതിനുവേണ്ടി ക്രമപ്പെടുത്താൻ ഒക്കത്തുള്ളൂ അങ്ങനെ പത്രത്തിൽ ഞാൻ അതുകൊണ്ട് വാർത്തകൾ മാത്രമല്ല പത്രത്തിലുൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വേണ്ടപ്പെട്ടതു തന്നെയാണ് ഏറ്റവും കുറഞ്ഞത് എ എഡിറ്ററുടെ ലേഖനം വരെ നമ്മൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ് അതുപോലെ ഞായറാഴ്ച വരുന്ന ചിന്താവിഷയങ്ങൾ അതിൽ നല്ല നല്ല തോട്ട്സുകളുണ്ടാകും പിന്നെ ചില ചെറുകഥകൾ കാണും അതിലും എന്തെങ്കിലുമൊക്കെ ഗുണപാഠങ്ങൾ കാണും അതുകൊണ്ടുതന്നെ ഒരു പത്രമെന്നാൽ പത്രത്തിലെ വാർത്തകൾ മാത്രമല്ല എല്ലാം പത്രത്തിൽ വരുന്ന ഈ വലിയ പരസ്യങ്ങൾ ഒഴികെ ബാക്കി വരുന്നതെല്ലാം നമുക്ക് വളരെ പ്രയോജനം തരുന്നത് തന്നെയാണ്